വയനാട് ജില്ലയിലെ പിന്നേ ലഭ്യമായ ചില പ്രാദേശിക ഗതാഗത സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സും അതായത് ബസ്സ് ഓട്ടോറിക്ഷ അങ്ങനേ ഒക്കെയുള്ളൂ പിന്നേ സ്വകാര്യ വാഹനങ്ങൾ അത് സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉള്ളവർ അതായത് ഇപ്പോഴെന്നൊക്കേ പറഞ്ഞാൽ എല്ലാവർക്കും തന്നേ സ്വന്തമായിട്ടുണ്ട് ഒരു സ്കൂട്ടി പോലുമില്ലാത്ത വീടുകൾ വളരേ കുറവാണ് എങ്കിലും ഇല്ലാത്തവരും ഉണ്ട് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ അങ്ങനേ പിന്നേ പ്ലെയിൻ അങ്ങനത്തേ വിമാന സൗകര്യങ്ങൾ അങ്ങനത്തേ ഒന്നുമില്ലാ എയർപോർട്ടും ട്രെയിനും കാര്യങ്ങളൊന്നും ഇല്ലാ അപ്പോൾ നമുക്ക് ട്രെയിൻ എയർപോർട്ടിൽ ഒക്കേ പോകണമെങ്കിൽ നമുക്ക് കണ്ണൂർ പോകണം അല്ലെങ്കിൽ കോഴിക്കോട് പോകണം മറ്റ് ജില്ലയിൽ ആശ്രയിക്കേണ്ടി വരും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സൊന്നും ഇല്ലെങ്കിലും ബസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉപകാരമാണ് കാരണം എല്ലാവരുടെ വീട്ടിലും ഇപ്പം അതായത് ഒരു എൺപത് ശതമാനം വീട്ടിലും വണ്ടി ഉണ്ടെങ്കിലും ഒരു ഇരുപത് ശതമാനം ആൾക്കാരും അതായത് ചിലപ്പോൾ ജോലിക്കൊക്കേ പോകണമെങ്കിലും അതായത് ചിലവരൊന്നും വണ്ടി എടുക്കില്ല അപ്പോൾ ബസ്സിലും കാര്യങ്ങളിലും ഒക്കേ ആയിരിക്കും പോകുന്നത് അപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹെൽപ്പാണ് ബസ്സൊക്കേ കയറുന്നത് അപ്പം അതായത് ജോലിക്ക് പോകുന്നവർക്ക് കറക്റ്റ് ടൈമിൽ എത്താനും അതിനൊക്കേ ബസ്സൊക്കേ നല്ല ഉപകാരമാണ് ഉപകാരമാണ് ചെയ്യുന്നത്